ആ ഉണ്ടായിരുന്നല്ലോ എവിടുന്നാ വിളിക്കുന്നത് ആണല്ലേ ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു പ്രകാശ് രാജെന്നല്ലേ ചേട്ടാ നമ്മൾ വീട് നോക്കുന്നുണ്ടായിരുന്നേ ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മൾ പാറത്തോട്ടിൽ പലയിടത്തും നോക്കിയായിരുന്നു നമുക്കൊന്നും അങ്ങോട്ട് ശരിയായില്ലായിരുന്നേ ആ വീടുകൾ കിടപ്പുണ്ടായിരുന്നോ

ആ നമ്മള് വാടകയ്ക്കും നോക്കുന്നുണ്ട് നമ്മളൊരെണ്ണം സ്വന്തമായിട്ട് വാങ്ങിക്കാനും നോക്കുന്നുണ്ടായിരുന്നേ ഇപ്പോൾ വാടകക്കും സ്വന്തമായിട്ട് നമ്മൾ നോക്കുന്നത് ഒറ്റ നില വീടായിരുന്നു വേണ്ടത് അപ്പം ബാത്രൂമൊക്കെ അറ്റാച്ച്ഡാടയിട്ടുള്ള ഒറ്റ നില വീടായിരുന്നു വേണ്ടത് ഇച്ചിരി സൗകര്യത്തിലെ വെള്ളവും വഴിയും കറണ്ടക്കെയുള്ളതെ അങ്ങനെന്തെങ്കിലും വീടുകളൊക്കെയായിരുന്നു നമ്മൾ നോക്കുന്നതേ ആ നമുക്ക് മിനിമം ഒരു മൂന്ന് ബെഡ്റൂമ് വേണം ചേട്ടാ മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ബാത്രൂമ് ഹാള് കിച്ചൻ വർക്ക് ഏരിയ ആ ഒരു ചെറിയ കാർ പോർച്ചും അപ്പം അത്യാവശ്യം പാർക്കിങ്ങുള്ള ഒരു സ്ഥലം ആ മോഡേൺ വീടുകൾ ആ കിട്ടിയാൽ നല്ലതായിരുന്നു ആണല്ലേ ആണല്ലേ ആണല്ലേ വേറെ മ്മ് അതെയതെ ഇപ്പം നമ്മൾ

നമുക്ക് വാടകയ്ക്കെടുക്കാനാണെങ്കിൽ എത്രയാന്ന് ബഡ്ജറ്റ് മന്ത്ലി സെക്യൂരിറ്റിയൊക്കെ എങ്ങനെയാകും റെൻ്റാവും അല്ലേ ആ ഓ ഓ ഓക്കെ യോക്കെ ടൗണേ് ഏരിയേൽ തന്നെയാണോ

അതെയതെയതെ ആ ആ വെള്ളവും വഴിയും കറണ്ടെല്ലാം ഉള്ളതാണല്ലേ

അതെയതെയതെ അ ഹ ഹ നമുക്ക് എന്ന് വന്നാലൊന്ന് കാണാൻ പറ്റും ചേട്ടാ അത്

ഉണ്ടല്ലേ നമുക്ക് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടാൻ പാകത്തിനേ ആ സ്കൂളിനോടക്കെ ചേർന്ന് പള്ളിയോടൊക്കെ ചേർന്ന് ഞങ്ങൾ ക്രിസ്ത്യൻസായിരുന്നേ അപ്പം പള്ളിയോട് ചേർന്നാൽ സൗകര്യമായിരുന്നേ ആണല്ലേ ആ ആ അങ്ങനെ അങ്ങനെ എന്നെങ്കിൽ ഇന്നിപ്പം എന്തായാലും സമയം പോയല്ലോ നാളെ വൈകുന്നേരം നാല് മണിയാകുമ്പോൾ വരാം അപ്പം രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണാം അപ്പം ഞാനും നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് പേരെയും കൂട്ടിയിട്ട് വരാം അപ്പോൾ വന്ന് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് നമുക്കെഴുതാം കുഴപ്പം ഇല്ല കൊടുക്ക സെക്യൂരിറ്റി സെക്യൂരിറ്റി കൊടുക്കണോ സെക്യൂരിറ്റി എത്രയാകും എന്ന് അങ്ങനെ വല്ലതും അറിയാമോ രണ്ട് ലക്ഷം രൂപ അല്ലേ ആ ഓക്കേ യോക്കെ യോക്കെ ആ അപ്പം പിന്നെ വേറെ പ്രശ്നങ്ങളുള്ള വീടൊന്നുമല്ലല്ലോ അത്യാവശ്യം എന്താ പറയുന്നത് ആ ആ ആണല്ലേ ഓക്കെ യോക്കെ ചേട്ടൻ്റെ പേര് പൗലാസ് എന്നാണല്ലേ ആ ഓക്കെ യോക്കെ ആ നമുക്ക്

വിൽപ്പനക്കല്ലേ അത് ഒറ്റനില വീടുകളാണോ അതോ രണ്ട് നില വീടുകളാണോ ഉണ്ടല്ലേ

മ്മ് ഓക്കെ യോക്കെ ആ അങ്ങനെയുണ്ടെങ്കിൽ എന്നാൽ നാളെ വൈകിട്ട് ഞങ്ങൾ ഇറങ്ങാം നാളെ വൈകിട്ടൊരു നാല് മണിയാകുമ്പം പ്രാർത്ഥിച്ചിട്ട് വരാം കേട്ടോ ഞാൻ മുരിക്കാശ്ശേരിയിലായിരുന്നേ ആ അപ്പം അങ്ങനെയാണേൽ നാളെ വൈകീട്ട് വരാം ഓക്കേ ഓക്കേ അപ്പം നാളെ വിളിച്ചിട്ട് വന്നോളാം ശരി താങ്ക് യൂ